എനിക്ക് സഹോദരങ്ങളുണ്ട് എനിക്കൊരു ഏട്ടൻ ഉണ്ട് ഞങ്ങൾ രണ്ടു മക്കളാണ് അപ്പോൾ എൻ്റെ ഏട്ടനും എനിക്കും തമ്മിൽ പല കാര്യങ്ങളിൽ സാമ്യതകളും ഉണ്ട് പലകാര്യങ്ങളിൽ വ്യത്യാസങ്ങളുമുണ്ട് വ്യത്യാസങ്ങളാണ് കൂടുതലും കണ്ടയിടത്ത് ഇപ്പോൾ ഞാനും എൻ്റെ ഏട്ടനും പഠനത്തിൽ ആണെങ്കിലും ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നതിൽ ആണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് പിന്നെ സംസാരത്തിൽ ആണെങ്കിലും ഞാൻ എൻ്റെ ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് നന്നായിട്ട് സംസാരം പറയും എന്നാൽ വീട്ടിൽ നിന്നും നന്നായിട്ട് ഞാൻ സംസാരിക്കും എന്നാൽ എൻ്റെ ഏട്ടൻ അധികം സംസാരിക്കാത്ത ഒരു സൈലൻറ് ആണ് പഠനത്തിൽ ഞാൻ നല്ല രീതിയിൽ പഠിക്കും എനിക്ക് പഠിക്കാനാണ് കൂടുതൽ ഇഷ്ടം ഞാൻ സ്കൂളിൽ ഒക്കെ പോകുമ്പം മറ്റുള്ളവരോട് അധികം സംസാരിക്കില്ല ഫ്രണ്ട്സ് ആണെങ്കിലും എനിക്ക് വളരെ കുറവാണ് ഞാൻ പഠിച്ച് എനിക്ക് നല്ല മാർക്ക് വാങ്ങുക എന്നുള്ള ഒരു ബോധമുണ്ട് എന്നാൽ എൻ്റെ ഏട്ടന് മറി നല്ല വ്യത്യാസമാണ് എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് സ്കൂളിൽ പോയി കൂട്ടുകാരോടൊത്ത് കളിച്ച് ചിരിച്ച് അധികം മാർക്കൊന്നും ഉണ്ടാവില്ല എക്സാമിനൊക്കെ ജസ്റ്റ് പാസ് ആണ് അപ്പോൾ പിന്നെ അതുപോലെതന്നെ ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ ഏട്ടന് നന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് അത്ര ഫ്രണ്ട്സ് ഒന്നുമില്ല കുറവാണ് പിന്നെ ഇപ്പോൾ ഭക്ഷണത്തിൽ ആണെങ്കിലും എനിക്ക് പുറ പുറത്തുള്ള ഭക്ഷണങ്ങൾ ഒക്കെ അത്യാവശ്യം കഴിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ ഏട്ടന് വീട്ടിലുള്ള കൂടുതൽ ഭക്ഷണം കഴിക്കാനാണ് ഇഷ്ടം പുറത്തൊന്നും അങ്ങനെ കഴിക്കാറില്ല പിന്നെ എൻ്റെയും എൻ്റെ ഏട്ടൻ്റെയും കൂടുതൽ സാമ്യത എന്ന് പറയുന്നത് നമുക്ക് രണ്ടാൾക്കും കറങ്ങാൻ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ട്രിപ്പ് ഒക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഫാമിലിയോടൊത്തിട്ടാണെങ്കിലും ഫ്രണ്ട്സിനോടൊപ്പം ആണെങ്കിലും ആഴ്ചക്കൊക്കെ ട്രിപ്പ് പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചില കാര്യങ്ങളിൽ ഒക്കെ ഒരേ അഭിപ്രായങ്ങളാണ് ഉണ്ടാവാറ് ചില ചില കാര്യങ്ങളിൽ ഒക്കെ ഒരേ അഭിപ്രായം എല്ലാ കാര്യങ്ങളിലും ഇല്ല ചില കാര്യങ്ങളിലൊക്കെ ഒരേ അഭിപ്രായവും ഒരേ ഒരേ പോലെയാണ് നമ്മൾ സംസാരിക്കാറ്